ട്യൂഷനും കാര്യങ്ങളും ഇപ്പോൾ എല്ലാ നാട്ടുകളിലും ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ആണെങ്കിലും ഈ സ്കൂളിന് പുറമെ വീട്ടിലുള്ള താത്തമാരും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത്തമാരും ഓരോരുത്തരോക്കെ ഓരോരോ ഇതിന് വേണ്ടീട്ട് അവര് അവരുടെ ചിലവിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ട്യൂഷനും കാര്യങ്ങളും എടുക്കാറുണ്ട് അത് വളരെ അധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും പഠിക്കാനും കാര്യങ്ങക്കും എല്ലാത്തിനും വേണ്ടിട്ട് വളരെ അധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അവരവരുടെ രീതിയിലും കാര്യങ്ങൾക്ക് ആണെങ്കിലും അവര് ഓരോ സെക്ഷനായിട്ട് ഭയങ്കരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ ഇതിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാനും ഇപ്പോൾ ചില കുട്ടികൾക്ക് ചില വിഷയങ്ങൾക്ക് മാത്രമായിരിക്കും മാർക്ക് കാര്യങ്ങളൊക്കെ കുറവ് വരുന്നത് അപ്പോൾ അവർക്ക് അത് മാത്രമായിട്ട് പഠിക്കാനും കാര്യങ്ങൾക്ക് ഒക്കെ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ട്യൂഷൻ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ട്യൂഷനിൽ എന്ന് പറയുമ്പോൾ നമക്ക് നമ്മളുടെ ഡൗട്സ് കാര്യങ്ങളും ഇതും ഒരു റിവിഷൻ പോലെ എല്ലാം റിപീറ്റ് ചെയ്ത ഇതാകുകയും അവർക്ക് വേണ്ട രീതിയിൽ ഉള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ഒരാൾക്ക് വേണ്ടി ഒരാളെ വേണ്ടീട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും എന്നെ കാണാം ഈ വീടുകളിൽ ചെയ്ത കൊടുക്കുന്നതും അതുപോലെ ട്യൂഷൻ സെന്റെറുകൾ ആയിട്ടാണെങ്കിലും ഒന്ന് രണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രം പഠിപ്പിച്ച് കൊടുക്കുന്നതായ ആൾക്കാരും എല്ലാം തന്നെ കാണാൻ പറ്റും